പാമ്പുകടിയും പ്രാണികളുടെ കുത്തല് പോലെയുള്ള മൃഗങ്ങളുടെ കടികളിൽ നിന്ന് നമ്മള് സുരക്ഷിതമായിരിക്കാനുള്ള ഒന്നാമത്തേത് നമ്മൾ ആ ജന്തുക്കളുള്ള ഭാഗത്തേക്ക് പോകരുത് ഇനി നമുക്ക് അർജൻറ്റായിട്ട് അങ്ങനെ പോകേണ്ടിവന്നാല് നമ്മളതിന് പ്രതിവിധിയായിട്ടുള്ള നമ്മുടെ ശരീരത്തില് അതിനുള്ള ലോഷന് അതിനായിട്ടുള്ള ഇങ്ങനെ ഇവരൊക്കെ ഉപദ്രവിക്കാതിരിക്കാനും നമ്മുടെ ശരീരത്തില് തേക്കാനുള്ള ലോഷന് അങ്ങനെ ക്രീം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും അങ്ങനെയെന്തെങ്കിലും നമ്മള് വാങ്ങി ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ഇന്നത്തെക്കാലത്ത് അതിനൊക്കെ ചാൻസുണ്ട് നമുക്ക് അർജൻറ്റായി അങ്ങനെ പോയി നമുക്ക് അങ്ങനെയുള്ളൊരു അവസരത്തില് ആ ഭാഗത്തേക്ക് പോകേണ്ടി വന്നാൽ അതിനുള്ള പ്രതിവിധിയായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എന്താണെന്നുവെച്ചാല് നമ്മളതിനെ ഉപദ്രവിക്കാതിരിക്കുക അധികം അങ്ങനത്തെ ജീവികള് നമ്മളെ ഉപദ്രവിക്കുന്നത് നമ്മള് അവരെ ഉപദ്രവിക്കുമ്പോഴാണ് അപ്പോള് അത് നമ്മളെ ഉപദ്രവിക്കാതിരിക്കും ചിലത് നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കില് അപ്പോള് ഇങ്ങനെ എന്തെങ്കിലും ഇനി അഥവാ അവര് നമ്മളെ ഒരാളെ ഉപദ്രവിക്കുകയാണെങ്കില് പിന്നെ നമ്മള് പ്രതിവിധിയായിട്ട് എന്തെങ്കിലും നാട്ടുവൈദ്യമായിട്ടോ അല്ലെങ്കില് പിന്നെ ഹോസ്പിറ്റലിലോ വെച്ച് അങ്ങനെയൊരാള് അത്യാസന്ന നിലയിലൊക്കെ ആവുകയാണെങ്കില് അങ്ങനെ ചെയ്യാം അങ്ങനെ രക്ഷിക്കാനുള്ള അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട് പിന്നെ ഒന്നാമത് നമ്മളവരെ പൊതുവായിട്ട് ഉപദ്രവിക്കാതിരിക്കുക അവരെ തിരിച്ചിട്ട് അവരെ ഉപദ്രവിക്കാതിരിക്കുക നമ്മള് ഉപദ്രവിക്കുമ്പോഴാണ് അവര് തിരിച്ച് ചെയ്യുക ഇനിയിപ്പോളൊരു പാമ്പാകട്ടെ പ്രാണികളാകട്ടെ ഇപ്പോള് എന്തിനെയെങ്കിലുമൊക്കെ അവര് എന്താണ് പറയുക പാമ്പൊക്കെ നമ്മള് ആ ഭാഗത്ത് ആ ഭാഗത്തേക്ക് അധികം നമ്മള് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക അധികം അഥവാ നമ്മള് അറിയാതെ ചെന്നുപ്പെടുകയാണെങ്കില് അങ്ങനെ നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കില് നമ്മള് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നാട്ടുവൈദ്യമൊക്കെ അതിന് പ്രതിവിധിയായിട്ട് അതിന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്യുക പിന്നെന്താണെന്ന് വെച്ചാല് അർജന്റിന് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുക പിന്നെ നമുക്ക് ഇത് പറഞ്ഞതുപോലെ തന്നെ ഓരോ ക്രീമായിട്ടോ അങ്ങനെ അവര് ഉപദ്രവിക്കാതിരിക്കുന്ന ഓരോ ഇതൊക്കെ മരുന്നുകളൊക്കെയുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ തേക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള ഓരോന്നും ഉപയോഗിക്കുക അതൊക്കെ ചെയ്യുക അപ്പോള് ഇന്നത്തെക്കാലത്ത് അങ്ങനത്തേതിനൊക്കെ എല്ലാത്തിനും ചികിത്സയുള്ള കാലമല്ലേ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പോലെയുള്ള മൃഗങ്ങളൊക്കെ സുരക്ഷിതമായിരിക്കാനൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക